ഒരു കിണറ്റിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ വെള്ളം പുറത്തെടുക്കുവോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുക്കിപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മള് കപ്പിയും കയറും വെച്ചിട്ടാണ് എല്ലാവരും വെള്ളോക്കെ ഇങ്ങനെ കെണറ്റിൽ നിന്ന് പോറത്തെടുക്കാറ് പക്ഷെ ഇപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെക്കാലത്ത് മോട്ടറ് മോട്ടറിലാണ് ഈ കൂടുതൽ എല്ലാവരും ഏകദേശം മോട്ടറില്ലാത്ത വീടുകളൊക്കെ വളരെ കുറവാണ് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇപ്പം കൂടുതലെല്ലാനും മോട്ടറ് ഇപ്പം മോട്ടറ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പിന്നെ കിണറ്റിൻ്റെ ഉള്ളിലേക്ക് വിടുന്ന മോട്ടർ ഉണ്ട് പുറത്തേക്ക് കാണുന്ന രീതില് മോട്ടർ ഉണ്ട് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കി ണറ്റിൻ്റെ ഉള്ളില് മോട്ടറ് ഇറക്കി വച്ച് അതില് പൈപ്പും വയറും അങ്ങനത്തെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മള് വീട്ടില് മോട്ടറിടാനുള്ള ഒരു പിന്നെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വച്ച് കഴിഞ്ഞിട്ടാണ് നമ്മള് പിന്നെ മോട്ടറ് പ്രവർത്തിപ്പിക്കുന്നത് അപ്പം നമ്മള് ഇതൊക്കെ കണക്ഷനൊക്കെ ഒരു ഇലക്ട്രീഷനെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മക്ക് വീട്ടില് വെള്ളം വരും പിന്നെ ടാങ്ക് കാര്യങ്ങള് പൈപ്പ് അങ്ങനെ പ്ലംബിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാ നമ്മക്ക് പൈപ്പില് വെള്ളം കിട്ടും അങ്ങനെയാണ് നമ്മള് ചെയ്യാറ്